അഞ്ച് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുപ്പത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാല് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്ന് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ഒൻപത്